ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് കൊണ്ടുവരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആദ്യമൊക്കെ ഗ്രാമങ്ങളിലേക്കുള്ള വാർത്തകളൊന്നും എന്താ പറയുക അവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ മാധ്യമങ്ങളിലേക്കൊന്നും എത്തിക്കേണ്ടി ഇരുന്നില്ല എന്നാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പോൾ ഓരോ മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ വരെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് അവരുടേതായ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതായത് മാധ്യമങ്ങൾക്കിടയിൽ തന്നെ ഒരു മത്സരം നടക്കുന്ന രീതിയിലാണ് കാണുന്നത് അതായത് എന്തുകാര്യം ഉണ്ടായാലും അത് ആദ്യം ഇത്തരത്തിൽ അതായത് ഒരുപാട് മാധ്യമങ്ങളുള്ളതുകൊണ്ട് ആരാദ്യം ഈ ന്യൂസ് പ്രചരിപ്പിക്കുന്നു എന്ന് നോക്കുന്ന ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഗ്രാമങ്ങളെന്നോ നഗരങ്ങളൊന്നും ഇല്ലാതെ എല്ലാ ഈ വാർത്തകളും ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയ്ക്ക് തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ മാധ്യമങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക ഗ്രാമപ്രദേശങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല രീതിയ്ക്ക് തന്നെ കരുതലൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നല്ല രീതിയ്ക്ക് തന്നെ അവർ മുന്നോട്ടു കൊണ്ടുപോകുന്നുണ്ട്